ഇപ്പോൾ വയനാട് ജില്ലയില് കൈമാറി വന്ന പലതരം കഥകള് കാര്യങ്ങളൊക്കേ ഉണ്ട് അതായത് നമ്മുടെ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ കഥയുണ്ട് അതായത് നമ്മുടേ വൈത്തിരീൻ്റ അവിടെ പുള്ളിൻറ്റൊരു പ്രതിമ ഒക്കേ പണിതിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ നമുക്കിപ്പോൾ വയനാട് വിട്ട് പുറത്തു പോകാൻ വേറെ വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ ബ്രിട്ടീഷുകാർക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ട് അവര് കൊന്നുകളഞ്ഞ ഒരു ആളാണ് കരിന്തണ്ടൻ എന്ന് പറഞ്ഞിട്ട് അപ്പം വഴി പറഞ്ഞു കൊടുത്തത് പുള്ളി പറഞ്ഞ വഴിയിലൂടെയാണ് ഇപ്പോൾ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലം പോകുന്നത് അപ്പം അതൊരു പഴയ രീതിയിലുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനത്തെ ഒരു കഥയുണ്ട് പിന്നേന്നു പറഞ്ഞു കഴിഞ്ഞാൽ പഴശ്ശിരാജയുടെ കഥ അതിപ്പോൾ സിനിമ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പഴശ്ശിരാജയുടെ കഥ അതായത് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് അത് കുറച്ച് ഒരു രണ്ടായിരത്തി പതിനൊന്ന് പത്ത് ആ ടൈമിലൊക്കെയായിരുന്നു പഴശ്ശിരാജ ഇറങ്ങിയത് അതും ഇതേപോലെ തന്നേ നമ്മുടെനമ്മുടെ ഒരു രാജാവായിരുന്നു വയനാടിൻറ്റെ അപ്പം പുള്ളിനെ വച്ചിട്ട് കഥയൊക്കേ ഉണ്ടായിരുന്നു ഇപ്പംന്ന് പറഞ്ഞാൽ സിനിമേലേക്ക് നമ്മുടെ വായനാട്ടിന്നു ഇഷ്ടംപോലെ ആൾക്കാരൊക്കേ ഇണ്ട് അബു സലിമ് സണ്ണി വെയിന് ഇവരൊക്കേ പോയിട്ടുണ്ട്